ഹലോ ഗ്രീൻ ഹിൽസ് പബ്ലിക്ക് സ്കൂൾ ആ ആ ആ ആ എന്നാൽ ഓക്കെ ആ എന്നാൽ നമുക്ക് ഇപ്പം ഡൊണേഷൻ ഡൊണേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ബുക്ക് ചെയ്ത് വെക്കാം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാസം ഒരു വർഷത്തേക്ക് അമ്പതിനായിരം രൂപയാണെ ആ പിന്നെ യൂണിഫോം അതൊക്കെ വേറെ തന്നെയാന്ന് ഇപ്പം ബുധനാഴ്ച്ചകളിൽ പിന്നെ വേറെ യൂണിഫോമ് ബാക്കിയുള്ള ദിവസങ്ങളിൽ വേറെ കളർ യൂണിഫോമാണ് പിന്നെ ബസ്സിൻ്റെ നിങ്ങളെ വീട് എവിടെയായിട്ട് വരും മാനന്തവാടിയിൽ തന്നെയാണോ അല്ലേ ആ അപ്പം നമുക്ക് പിന്നെ നിങ്ങൾക്ക് വണ്ടിയിൻ്റെ എന്തെങ്കിലും സൗകര്യം വേണമെങ്കിൽ അതുണ്ട് ബസ്സുണ്ട് നമുക്കിവിടെ രാവിലെ അല്ല അല്ല ബസ്സ് ബസ്സ് ഫെയർ ഒക്കെ വേറെയാണേ അപ്പം ബസ്സുകാർ നമ്മൾ ഓരോ കിലോമീറ്റർ അനുസരിച്ച് പൈസ അതാണ് രാവിലേയും വൈകുന്നേരവും പിന്നെ ബസ്സിലൊരു ചേച്ചി ഉണ്ടാവും കുട്ടികളെയൊക്കെ നോക്കാൻ അപ്പോൾ അതിനൊന്നും കുഴപ്പം ഉണ്ടാവില്ല പിന്നെ ഒരു പത്ത് മണിയാകുമ്പോൾ കുട്ടിക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊടുത്തു വിടണം പിന്നെ ഉച്ചയ്ക്കുള്ളത് എന്തെങ്കിലും സ്നാക്സ് അങ്ങനെ ഒക്കെ ഉള്ള സ്നാക്സും ഫ്രൂട്ട്സൊക്കെ അങ്ങനെ കൊടുത്തു വിടണം പിന്നെ ഒരു കുട്ടീനെയേ ചേർക്കാനുള്ളുവോ ആ ആ ഓക്കെ ആ യൂണിഫോം യൂണിഫോമ് ഇവിടെ നിന്ന് കിട്ടില്ല മാനന്തവാടി ഒരു സിത്താരയെന്ന് പറഞ്ഞ അവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ സ്കൂളിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ എടുത്തു തരും യൂണിഫോം എടുത്തു തരും

ആ രണ്ടു കളറ് അതായത് ബുധനാഴ്ച്ചത്തേക്കും ഒരു ആ പിന്നെ ഒരു മിഡിയും ടോപ്പും ആ മിഡിയും ഷേർട്ടും ഇതാണ് നമ്മളെ യൂണിഫോമ്

നിങ്ങൾ എന്താ ജോലി എന്തെങ്കിലും ചെയ്യുന്നയാണോ അങ്ങനെയാണെങ്കിൽ വൈകുന്നേരം നമ്മൾ ഇവിടെ പഠിപ്പിച്ച് വിടുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഒരു ഡയറിയിലൊക്കെ എഴുതി വിടും അപ്പം അതിനനുസരിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മൾ ഇവിടെ നിന്ന് ശ്രദ്ധിക്കും പക്ഷെ അതെന്നാൽ നിങ്ങൾ വീട്ടിൽ നിന്നും കൂടി ശ്രദ്ധിക്കുമ്പോഴേ അവർ നല്ലോണം പഠിക്കൂള്ളൂ അപ്പം അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ആ വേറെ എന്തെങ്കിലും ഡൌട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ

ആ ആ നേരിട്ട് എപ്പോഴാണ് വരുന്നത് ചേർക്കാൻ വരുന്നുണ്ടോ ആ അഡ്മിഷൻ എടുക്കാൻ വരുമ്പം പതിനായിരം രൂപയാണേ ആ ഓക്കെ എന്നാൽ